ഞാൻ ചെടി ചെടി അത് നടാൻ വേണ്ടിയിട്ട് കൊക്കോ പീറ്റ് ചാണകപ്പൊടി പിന്നെ സാധാരണ മണ്ണ് കേട്ടോ കൊക്കോ പീറ്റ് നമുക്ക് ഈ നഴ്സറികളിൽ നിന്നൊക്കെ ഈ കിട്ടും അഞ്ച് കിലോൻ്റെ അല്ലേ രണ്ട് കിലോന്റെ ബോക്സ് ആയിട്ട് എന്നിട്ട് നമ്മൾ അത് ഒരു വലിയ കൊട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാത്രമോ അല്ലെങ്കിൽ ചാക്കൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ കുതിർക്കാൻ വേണ്ടി വെക്കും അത് കുതിർന്ന് കഴിയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് അതിലോട്ട് കുറച്ചു മണ്ണ് പിന്നെ ചാണകപ്പൊടി ഒക്കെ ഉണ്ടെങ്കിൽ ചാണകപ്പൊടി ഒക്കെ ഇടും എന്നിട്ട് അതിങ്ങനെ കുതിർന്നു കഴിഞ്ഞിട്ട് എല്ലാം കൂടി അങ്ങനെ മിക്സ് ആകും ഈ കൊക്കോ പീറ്റ് പിന്നെ നമ്മൾ കുതിർത്ത് കഴിയുമ്പോൾ അതിനു ഒത്തിരി ഉണ്ടാകും കുറെ ക്വാണ്ടിറ്റി കൂടും എന്നിട്ട് നമ്മൾ എന്തു ചെയ്യും അതെല്ലാം കൂടി കുറച്ചീശെ കുറച്ചീശെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഗ്രോ ബാഗ് അതേപോലെതന്നെ കവറുകൾ ചട്ടികൾ ഒക്കെ നിറയ്ക്കും എന്നിട്ട് നമുക്കിപ്പം ചെടി നടാൻ ഉണ്ടെങ്കിൽ ചെടി നടാം നിന്നെ അതേപോലെതന്നെ ഇതും നടും പച്ചക്കറികളും നടും അപ്പോൾ നമ്മൾ ഇതാകുമ്പോൾ വളവും നിൽക്കും വെള്ളവും നിൽക്കും അതിന്